മൺകാലങ്ങളിലെ യുദ്ധവും അതു പോലെ തന്നെ ഏറ്റുമുട്ടലുകളില്ലാതെ തന്നെ പലതരത്തിലുള്ള പലാനയങ്ങൾ പലാനയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെ വെച്ചാൽ പ്രളയങ്ങുണ്ടാകും അതുപോലെ തന്നെ സാ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരാ അവരുടെ നിന്നു പരായനം ചെയ്യും പരണയം ചെയ്യും അപ്പോൾ പലായനം ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും കാരണം അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങൾ ഒരു കൃത്യമായിട്ടുണ്ടാകില്ല അതു കൊണ്ടു തന്നെ നടന്നു പോകേണ്ട അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അതിൽ നിന്ന് അവർ രാത്രി സമയങ്ങളിലുള്ള അവരുടെ ഉറക്കം അതു പോലെ തന്നെ സ്ത്രീകളും കുട്ടികൾക്കുമുള്ള അവരുടെ ബുദ്ധിമുട്ട് പ്രായമായവരുടെയൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആണ് വെല്ലുവിളികായിട്ടുണ്ടാകാറ് പിന്നെ അവരിന്ന് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കുടുംബത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതു പോലെ അവരുടെ

അവരുടെ ഒരു ഒരു ഒരു കോളനി പോലെയൊരു ഒരുക്കിയിട്ടായിരിക്കും അവരെ സ്വീകരിക്കും ഇനിയങ്ങനെ സ്വീകരിച്ചവരുടെ ആ രാജ്യത്തിലുള്ള ചില സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ അവർ സ്വീകരിക്കേണ്ടി വരും അപ്പം ചില സംസ്കാരങ്ങൾ അവരുടെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഈ കുടിയേറിയവരുടെ സംസ്കാരങ്ങൾ കുറച്ച് അങ്ങോട്ടുണ്ടാകും അതുപോലെ തന്നെ അവിടുത്തെ സംസ്കാരങ്ങൾ കുറച്ച് ഇങ്ങോട്ട് കുടിയേറിയവർക്കും ഇങ്ങോട്ട് ലഭിക്കും അപ്പം അതിലൂടെ പല കൾച്ചറുകൾ രൂപപ്പെടുക എനിക്ക് അത് കാരണമായിട്ടുണ്ട് പണ്ട് കാലത്തിലുള്ള യുദ്ധങ്ങളിലൊക്കെ പല ആളുകളും ഇങ്ങനെ മാറി പോകുമ്പോൾ കുടിയേറ്റ കുടിയേറിയിട്ട് പലായനം ചെയ്തു പോകുമ്പോൾ അവിടെയുള്ള ചില ആളുകൾ അവരെ സ്വീകരിക്കും ചില ആളുകൾ അവർ സ്വീകരിക്കാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും അപ്പം അങ്ങനെയായാലും അവർ എത്തിയാൽ അവർ ഇങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് സെറ്റിലായാലും അവരെ അവരുടെ ചില സംസാര സംസ്കാരങ്ങളും അവരുടെ ചില സംസാര രീ ശൈലികളും ഭാഷകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് അവർ അത് പല രീതിയിലേക്കു കൊണ്ട് അതെത്തും ഒരു മിക്സ് ഒരു മിക്സ്ചർ ഓഫ് കൾച്ചേഴ്സ് കൾച്ചറുകളുടെ ഒരു മിശ്രിതം അവിടെ രൂപപ്പെടും ഇപ്പം പലതരത്തിലുള്ള കൾച്ചർ രൂപപ്പെടുമ്പോൾ തന്നെ ചിലത് നല്ല കൾച്ചറുണ്ടാകും അതു പോലെ തന്നെ ചിലത് ഈ മോശം കൾച്ചറിലേക്കും അത് എത്തിപ്പെടും തദ്ദേശിക ആചാരങ്ങളവരെ സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ നാ നാടുകളിലുള്ള മനസ്സിനനുസരിച്ചിരിക്കും ചില നാടുകളിൽ അവരുടെ ഒരു ബി ഫീലിങ്ങോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടാണെങ്കിൽ അവർക്ക് അവിടെ മറ്റുള്ള ആളുകളെ സ്വീകരിക്കാനവർക്ക് പ്രയാസമുണ്ടാകും അതുപോലെ തന്നെ ഗവൺമെൻ്റിൻ്റെ പ്രഷറോടു കൂടി ചില ഏരിയകളിൽ കൂടിയേറ്റക്കാർക്കു വേണ്ടി വിട്ടു കെടുക്കുക അങ്ങനത്തെ അവസ്ഥകളുണ്ടാകാറുണ്ട് ഏതായാലും അങ്ങനെ കുടിയേറ്റക്കാരുടെ കാരണമായിട്ട് പലതരത്തിലുള്ള കൾച്ചറുകൾ രൂപപ്പെടുകയും ചില കൾച്ചറുകൾ നശിക്കുകയും ചെയ്യും കാരണം ചില കൾച്ചറുകളിൽ നിന്ന് ആ നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും അപ്പം അവർ ആ നാട്ടിൽ നിന്ന് പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ യുദ്ധങ്ങളോ പല കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടുന്ന് പോയി കുടിയേറുകയാണെങ്കിൽ ആ നാട്ടിൽ നിന്നുള്ള കൾച്ചറവിടെ അവിടെ നഷ്ടമാകുകയും പിന്നെ അവിടേക്ക് വീണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും